ഞാൻ കൂടുതൽ പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പാടാൻ എൻ്റെ എനിക്ക് പറയാൻ പറ്റുന്ന ലാംഗ്വേജിലുള്ള പാട്ടുകളാണ് കൂടുതൽ ഞാൻ സെലക്ട് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാഷ മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയിൽ പാടുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രൊനൗൺസേഷൻ ഒക്കെ കറക്ട് ആവണമല്ലോ അപ്പം ഞാൻ കറക്ട് ആയിട്ട് ലിറിക്സ് നോക്കും അത് ബൈഹാർട്ട് ചെയ്യും അങ്ങനെ അത് കറക്ട് ആയിട്ട് പിന്നെ അത് അറിയുന്ന ഒരു ഇപ്പോൾ ഒരു തമിഴ് സോങ്ങ് ആണ് പാടുന്നത് എങ്കിൽ അത് തമിഴ് അറിയുന്ന ഒരാളെയടുത്ത് ഞാൻ അത് പാടി പാടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കും അപ്പം അവർ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമല്ലോ അപ്പം ഞാൻ ലിറിക്സ് ബൈഹാർട്ട് ചെയ്തിട്ട് പാട്ടു പാടും പിന്നെ കഴിയുന്നതും ഞാൻ എൻ്റെ ഭാഷയിലുള്ള പാട്ടുകളാണ് കൂടുതൽ പാടാറ് അഥവാ മറ്റൊരു ഭാഷയിൽ പാടുന്ന സമയത്താണെങ്കിലും ഞാൻ കറക്ട് അതിൻ്റെ വരികൾ എടുത്തിട്ട് അത് കാണാതെ പഠിക്കും ആന്റ് ഇപ്പോൾ ഓരോരോ ഭാഷകളിലും ഉള്ള പ്രൊനൗൺസേഷൻ ഒക്കെ കറക്ട് ആക്കും അതുപോലെതന്നെ അത് ആ ഭാഷ അറിയുന്ന ഒരാളടുത്ത് ഞാൻ ആ പാട്ട് കേൾപ്പിച്ചു കൊടുക്കും അപ്പം അവർ പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ശരിയാക്കി അങ്ങനെയാണ് മറ്റു ഭാഷകളിലുള്ള പാട്ടുകൾ ഞാൻ പാടാറുള്ളത്